എല്ലാ മീനും കൂടി ഈ പ്രദേശത്ത് പിന്നെ കിട്ടുന്ന മീനുകളെ കൂടുതലും നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആറ്റ് മീന് പിന്നെ കാരിവരാൽ കല്ലുമുട്ടി പരൽ പള്ളത്തി ചില്ലാൽ വാള ഇതെല്ലം നമുക്ക് സുലഭമായി കിട്ടുന്ന മീനാണ് പിന്നെ ആവശ്യക്കാർ കൂടുതലുള്ളത് എന്ന് പറയുമ്പം നമുക്ക് കാരിക്കുമൊക്കെ ഭയങ്കര ഡിമാന്റ് ആണ് കാരിക്ക് കാരിക്കും ഡിമാന്റ് ആണ് വരാലെന്ന് പറയുന്നത് നമുക്ക് ഒരു രോഗത്തിൽ നിന്ന് നമ്മളെ വിമുക്തമാക്കുന്നതാണ് എന്താ എന്ന് ചോദിച്ചാൽ നമുക്കൊരു നമ്മുടെ ശരീരത്തിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു മുറിവും ഒക്കെ ഉണ്ടായാൽ ഈ വരാൽ കഴിച്ചാൽ നല്ലതാണ് അപ്പം ഈ വരാൽ വരാലിനുമൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് മേടിക്കാനായിട്ട് അന്നേരം അപ്പം ഈ കാരിയും നല്ല മീനാണ് പിന്ന കല്ലുമുട്ടിയും എല്ലാം നല്ല മീനുകളാണ് പരലെന്ന് പറയുന്നത് നമുക്ക് ചെറുതാണ് ചെറുതാകുമ്പം അതിൽ നമുക്ക് ചെറുതായിട്ട് പിന്നെ പറ്റിക്കാനും അങ്ങനെയുള്ള ഇതിനൊക്കെ കൊള്ളത്തുള്ളൂ അതേ സമയം കാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല വേവിച്ച് കുറച്ചുകൂടി ദിവസം വെച്ച് കൂട്ടാവുന്ന മീനാണ് വരാലെന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഇപ്പം നമ്മുടെ ഇവിടെ ഭയങ്കര ഡിമാന്റ് ആണ് ആ വരാലെന്ന് പറയുമ്പോൾ നാനൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് രൂപയാണ് വരാലിൻ്റെ വില അത് നമുക്കീ വെള്ളം ഈ പറ്റുമ്പഴ്ത്തേക്ക് നമുക്കീ വരാലൊക്കെ കിട്ടത്തുള്ളൂ വരാൽ നമ്മളങ്ങനെ കൂടൊക്കെ വച്ചാണീ വരാലിനെ പിടിക്കുന്നത് അതുപോലെ തന്നെ കാരിക്കും അതുപോലെ തന്നെ നാനൂറ്റമ്പത് രൂപായും ഒക്കെയാണ് വില കല്ലും മുട്ടിക്കൊക്കെ അതിനേക്കാളും മുന്നൂറ് രൂപയെക്കെ ഉള്ളൂ വാളക്കും നല്ല വിലയാണ് നാനൂറ്റമ്പത് രൂപയൊക്കെയാണ് വാളയുടെ വില ഇതെല്ലം നമ്മൾ നന്നായിട്ട് അത് പിന്നെ വലിയ വാളായാണെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് തൂക്കി നമുക്ക് പിന്നെ തരും തൂക്കി തൂക്കിയാണ് നമ്മൾ മേടിക്കുന്നത് അതിനെ നമ്മൾ നന്നായിട്ട് അതിനെ കറി വച്ച് വച്ചാൽ നമുക്ക് ഒരു ഒരാഴ്ച്ച വരെയൊക്കെ നമുക്കത് വച്ച് നമുക്ക് കൂട്ടാവുന്നതാണ്